ക്യാബ് ഡ്രൈവറാണോ ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ക കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെ ആ അപ്പം കുറച്ച് ഒരു ഏഴുപേരുണ്ട് നമ്മൾ അപ്പോൾ ഇന്നോവ ബൊലേറൊ അങ്ങനെ എന്തെങ്കിലും വണ്ടിയുണ്ടാകുമോ നിങ്ങളുടെ അവിടെ അവ അവൈലബിൾ ആണോ ആണല്ലെ ഹാ അപ്പം ഞങ്ങൾക്കെപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത് അപ്പോൾ നാളെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ മറ്റന്നാളാണ് നമുക്ക് പോകേണ്ടത് മറ്റന്നാൾ നമുക്ക് രാവിലെ ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു ടൈമിനാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം നിങ്ങൾ അവൈലബിൾ ആണല്ലോ അല്ലെ ആ ഓക്കെ ഓക്കേ അപ്പം എത്ര കിലോ മീറ്ററിന് എത്രയാണ് റേറ്റ് വരിക ആണോ ഹാ ഹാ ഹാ ഓക്കെ ഓക്കെ ആ ഡ ഡ ആ ഡ്രൈവർ വേണം ഡ്രൈവർ വേണം ആ അങ്ങനെയാണെ ആ അങ്ങനെയാണെ കാൽകുലേറ്റ് ചെയ്തൊന്നു പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം ഞങ്ങൾ നാളെ ഒന്ന് നിങ്ങളെ വിളിച്ചിട്ട് കാര്യം അതായത് എപ്പോഴാണ് കറക്റ്റ് ടൈം എന്ന് പറയാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യൂ